രണ്ട് പത്ത് രണ്ടായിരത്തി രണ്ട് അഞ്ച് അഞ്ച് രണ്ടായിരത്തിയഞ്ച് ഇരുപത്തിയെട്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഇരുപത്തിയെട്ട് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്പത് ഏഴ് നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട്